കാനറ ബാങ്ക് അല്ലേ ഒരു പുതിയ അക്കൌണ്ട് തുടങ്ങാൻ എന്താ ചെയ്യേണ്ടത് പുതിയ അക്കൌണ്ട് തുടങ്ങിയിട്ട് ലോൺ എടുക്കുന്നതിനെന്തെങ്കിലും അപ്പോൾ ബുക്ക് ഇല്ലാത്തവർ ബുക്ക് വീണ്ടും എടുക്കേണ്ടി വരില്ലേ ആ ആയിക്കോട്ടെ ചെക്ക് ബുക്കിനു പകരം പാസ് ബുക്ക് അങ്ങനെ എന്തെങ്കിലും അല്ല ഓഹ് ഒക്കെ അല്ല ചെക്ക് ബുക്കിനു പകരം എന്താ എ ടി എം വച്ച് നമ്മൾക്ക് ഇതാക്കാൻ പറ്റില്ലേ ലോൺ ആ

ഇല്ല ഇപ്പോൾ നാളെ ഉണ്ടാവുമോ ഒരു പതിനാല് വയസ്സായ കുട്ടിക്ക് ജോയിന്റ് അക്കൌണ്ട് വേണോ അതോ നോർമലി അക്കൌണ്ട് എടുക്കാൻ പറ്റില്ലേ ജോ ആ

അക്കൌണ്ട് എടുക്കുമ്പോൾ തന്നെ ഡെപ്പോസിറ്റ് ഇടണോ ആ